ഹലോ ഇത് വായനാടാണോ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വിളിക്കുന്നതാണെ ഞങ്ങൾക്ക് വയനാട്ടിലെ ഏതൊക്കെ ടൂറിസ്റ്റ് പ്ലേസ് എന്ന് അറിയാൻ വേണ്ടിയായിരുന്നെ ഓക്കെ ആണല്ലേ ഓക്കെ ഓക്കെ പടിഞ്ഞാറത്തറ ഡാം അല്ലാണ്ട് വേറെ എന്തൊക്കെയാണ് ഉള്ളത് പിന്നെ ഓക്കെ ഞങ്ങൾ അഞ്ച് പേരുണ്ട് ഞങ്ങളുടെ മൂന്ന് മക്കളും ഹസ്ബൻഡും വൈഫും അങ്ങനെ അതെ അതെ അതെ ഫുഡ് കാര്യങ്ങൾ ഒക്കെ എങ്ങനെ സർ തന്നെ അറേഞ്ച് ചെയ്ത് താരോ ഓക്കെ എന്തൊക്കെ ഫുഡാണ് സർ ഓക്കെ റൂം ഒക്കെ റൂം റൂം അങ്ങനെ അങ്ങനെ ആണെങ്കിൽ കുഴപ്പമില്ല സർ നമ്മളൊരു ടെൻ ഡേയ്സിലേക്കാണ് ട്രിപ്പ് ഒരു സ്ഥലത്ത് തന്നെ അല്ല പല സ്ഥലത്തായിട്ട് നിൽക്കാൻ വേണ്ടിയാണ് ഞങ്ങൾക്കൊരു വണ്ടി നിങ്ങൾ അറേഞ്ച് ചെയ്ത് തരുമോ ഓഫ് റോഡിങ് ഇല്ല സർ നമ്മൾ അവിടെ എത്തിയിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നെ ഓക്കെ സർ സെവൻ സീറ്റ് ബൊലേറോ അത് നമുക്ക് സൗകര്യം പോലെ സർ നമ്മള് വെജ് ആണേ നോൺ വെജ് അല്ല ഓക്കെ സർ ഓക്കെ ഞാൻ വിളിക്കാം സർ അവിടെ വരാൻ ആകുമ്പോൾ ഞാൻ വിളിക്കാം